മലയാള ഭാഷയുടെ ചരിത്രം പറയുമ്പോൾ മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സംസ്കൃതം തന്നെയാണ് പല ഭാഷകളുടെയും ഹിന്ദി തമിഴ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളുടെയൊക്കെ ഉത്ഭവമെന്ന് പറയുന്നത് മലയാ സംസ്കൃതം തന്നെയാണ് മലയാളവും അതിൽ പെട്ടത് തന്നെ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇത്തരം ഒരു രൂപത്തിൽ എത്തിയതാണ് മലയാളം സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഭാഷയാണ് മലയാളം അതുപോലെ തന്നെ ഒരുപാട് ചരിത്രം പറയാനാണെങ്കിൽ പഴയ രീതികളിൽ ലിപി ഒക്കെ മാറിയിരുന്നു അക്ഷരങ്ങൾ ഇപ്പം ഒരുപാട് രീതിയിൽ പഴയ കാലത്തെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് രീതിയിൽ അക്ഷരങ്ങൾ മാറിയിരിക്കുന്നു അക്ഷരത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ അർത്ഥത്തിലുമൊക്കെ വാക്കുകൾ പലതിലും അർത്ഥത്തിലും ഒക്കെ പല ആശയങ്ങളൊക്കെ ഉന്നയിച്ച് ആ അതൊക്കെ അനുസരിച്ച് ഒരുപാട് രൂപമാറ്റങ്ങൾ മലയാളത്തില് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പരിണാമം നമ്മളുടെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മള് പഴയ കാലത്തെ അച്ചടി എങ്ങനെ അച്ചടിച്ചു വരുന്നു അതുപോലെ തന്നെയായിരുന്നു സംസാരിക്കുന്നതും പക്ഷെ ഇപ്പോൾ പല മാറ്റങ്ങൾ ഓരോ ഓരോ ഓരോ ഓരോ എന്താ പറയുക ഓരോ സ്ഥലങ്ങളിൽ പോയാലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഭാഷയിൽ നമുക്കിപ്പോൾ കണ്ടുവരാം ഇപ്പോൾ ചില ചില ആൾക്കാര് അച്ചടിയിൽ പറയുന്നു ചില ആൾക്കാര് മലയാളത്തിനോട് ബന്ധമില്ലാതെ ഏതോ ഒരു ഭാഷ സംസാരിക്കുന്ന പോലെ മലയാളം സംസാരിക്കുന്നു നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിലോരു മലയാളം വേറെ പല ഭാഷകളുടെ ഭാഷകളുടെ എന്താ പറയുക കടന്നുകയറ്റം ഇപ്പോൾ ഇവിടെ ആണ് പല ഭാഷകൾ കലർന്നുകൊണ്ട് മലയാളം പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മലയാളം മലയാളമാണോ എന്ന് എന്നുതന്നെ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ബുദ്ധിമുട്ടി തുടങ്ങി എന്തുകൊണ്ടോ മലയാളം നല്ലൊരു രീതിയിൽ പറയുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ മലേ മലയാളം നല്ല രീതിയിൽ എഴുതുന്നതും നല്ല മലയാളം രചനകൾ നിർമ്മിക്കുന്ന ഒരുപാട് ആൾക്കാര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ മലയാളം വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ച് വളരെ മലയാളത്തിന്റെ ആ ഒരു ഓജസ്സും തേജസ്സും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ മലയാളം പോലെയല്ല എന്നാൽക്കൂടി നല്ല രീതിയിൽ മലയാളം ഉപയോഗിക്കുന്നവരും പറയുന്ന ആൾക്കാര് ഇപ്പോഴും ഉണ്ട് പക്ഷെ മലയാളം ഏറ്റവും നല്ല രീതിയില് രചനയുടെ രൂപത്തിലോ ഒക്കെ പ്രചരിപ്പിക്കാം പക്ഷെ മലയാളം ഇപ്പം ആരും അങ്ങനെ ആ ഒരു ഭാഷ വളർത്താനോ ഭാഷ നിലനിർത്തി കൊണ്ടുപോകാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പുറം രാജ്യത്തേക്ക് പോകുന്നു മലയാളമൊക്കെ മറന്നുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മലയാളമൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട അപ്പം അങ്ങനൊരു അവസ്ഥ നമ്മള് വർ വരാൻ നമ്മൾ ഇടവരുത്തരുത് നമ്മള് നമ്മളുടെ ഭാഷയെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നല്ല രീതിയിൽ ആ ഭാഷ ഉപയോഗിച്ച് ആശയങ്ങൾ പങ്ക് വയ്ക്കുക അതുപോലെ തന്നെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഭാഷയുടെ മഹത്വം അത് ചരിത്രത്തിലെന്ന പോലെ തന്നെ ഭാഷ നല്ലരീതിയില് ഉയർത്തി നല്ല നിലയില് എത്തിക്കുക അതുപോലെ തന്നെ